കേരളസർക്കാർ ഉത്തരവാദിത്ത്വവും സുതാര്യം ആണോ ഉറപ്പാക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം എന്തെങ്കിലും നമ്മളുടെ ഒരു ഇൻഫർമേഷനോ എന്തെങ്കിലും ഒന്ന് അങ്ങനെ ലീക്കാവുന്നതായിട്ടുള്ള ന്യൂസോ അങ്ങനെയൊന്നും നമ്മൾ കേൾക്കാറില്ല അപ്പം അങ്ങനെ വരുമ്പം ഒരു പരിധിവരെ അവർ നമ്മളെ രക്ഷിക്കാറുണ്ട് നമ്മളുടെ കാര്യങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാറുമുണ്ട് പക്ഷെ നമ്മളിപ്പോൾ വേറെയൊരു തരത്തിൽ നോക്കുമ്പം ഒരുപാട് കുട്ടികൾ ഇപ്പം പി എസ് സി എക്സാമൊക്കെ എഴുതി പാസ്സായി ജയിച്ചു വരുന്നുണ്ട് അവരൊരു ലെറ്ററിനുവേണ്ടി വെയ്റ്റ് ചെയ്ത് അവർക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ എല്ലാവർക്കും അത് കിട്ടണം എന്നില്ല പഠിക്കാതെ ഒരു മാർക്കുപോലും കിട്ടി ജയിക്കാത്തവർക്ക് ജോലി കിട്ടുന്നുണ്ട് പിന്നെ ഡിഗ്രി പോലും എഴുതി കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് പി എച്ച് ഡി കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ അവസ്ഥകൾ വരുമ്പം ഒരു വിശ്വാസം ജനങ്ങൾക്ക് സർക്കാരിലുള്ളത് നഷ്ടപ്പെട്ടുപോവും അതുപോലെ വരുമ്പം ആരും പിന്നെ ആ സർക്കാരിലോട്ടുള്ളൊരു ഇഷ്ടമോ അല്ലെങ്കിൽ അവരിലുള്ളൊരു വിശ്വാസമോ പോവും അപ്പം അങ്ങനെ നോക്കുമ്പം അത്രയ്ക്ക് ഉത്തരവാദിത്ത്വം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്കില്ലയെന്ന് പറയേണ്ടിവരും പിന്നെ ഭരണം നോക്കുമ്പം ഇപ്പം കഴിഞ്ഞ ഒരുപാട് സർക്കാർ വച്ചു നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾത്തന്നെ അത് നിപ്പ വൈറസ് ഈ കേരളത്തിൽ വന്നപ്പം കോഴിക്കോടിൽ തന്നെ ഒതുക്കി ഒരു ഏഴുപേരുക്ക് അത് അസുഖം പടർന്നു ബാക്കിയുള്ളവർക്ക് പടരാതെ നോക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളസർക്കാർ ചെയ്തിട്ടുണ്ട് അത് വേറെ ഒരു ജില്ലകളിലും പോവാതെ വളരെ കാര്യമായിട്ട് അവർ ഡോക്റ്റേഴ്സും അവരുടെ അല്ലാത്ത ടീമുവൊക്കെക്കൊണ്ട് നന്നായിട്ട് അത് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു എപ്പോഴും ഒരു ഗവെർണിങ്ങ് ബോഡിയെപ്പറ്റി നല്ലതായിട്ടും ഉള്ള കാര്യങ്ങളുണ്ട് ചീത്തയായിട്ടുള്ള കാര്യങ്ങളുണ്ട്